രണ്ടാമത്തേ പ്രോഡക്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറാണ് ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കിപ്പം ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ കറന്റ് ചാര്ജും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു ഭയങ്കര ഹീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരും അപ്പോൾ ഇന്ഡക്ഷന് കുക്കറിനെ കൊണ്ടു നമുക്ക് നല്ലധികം ദോ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് ഇപ്പം ആള്ക്കാർ ഇന്ഡക്ഷന് കുക്കറൊക്കെ യൂസ് ചെയ്യുന്നത് കുറവാണ് കാരണം നമ്മളിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്ലഗ്ഗിൽ കുത്തിയാൽ തന്നെ നമ്മൾ മീറ്ററില് ഒന്ന് പോയി നോക്കിയാൽ കഴി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം മീറ്റര് നല്ലരീതിയില് ഓടുന്നതായിട്ട് കാണാം കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനു ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളവും കാര്യങ്ങളൊക്കെ ചൂടാകുകയുള്ളൂ അപ്പം അത് ചൂടാക്കാന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു പത്ത് മിനിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള കറണ്ട് ചാര്ജ് നല്ലരീതിയില് വര്ദ്ധിക്കും അപ്പം നമ്മൾ കൂടുതലായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇന്ഡക്ഷന് കുക്കറാണ് ഇന്ഡക്ഷന് കുക്കറിന്റെ മെയിന് ആയിട്ടുള്ള പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ ഉള്ളിൽ എലിയൊക്കെ കയറിക്കഴിഞ്ഞാല് അറിയുമോ അങ്ങനത്തെ കാര്യങ്ങള് ഒന്നും ഇല്ല ചിലപ്പം എലി വയറെല്ലാം കടിച്ചു മുറിക്കും അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മളിപ്പം കുറച്ചു നാൾ യൂസ് ചെയ്യാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാന് എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ വര്ക്ക് ചെയ്യാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പ്രൊഡക്റ്റിനുണ്ട്